ഇന്ത്യൻ ഐഡൽ കാണാറില്ല പക്ഷേ അതേപോലെ സ്റ്റാർ സിംഗർ അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ ഞാൻ കാണാറുണ്ട് സംഗീത റിയാലിറ്റി ഷോകൾ ഞാൻ കാണാറുണ്ട് അതെനിക്ക് വളരെ ഇഷ്ടം ഉള്ള ഒരു കാര്യമാണ് ഞാൻ ചെറുപ്പത്തിൽ സ് സ്റ്റാർ സിംഗർ പോലെയുള്ള പരിപാടികൾ ഞാൻ കാണാറുണ്ടായിരുന്നു അത്ര വളരേ ചെറുപ്പത്തിൽ കണ്ടതുകൊണ്ടു തന്നെ എനിക്കതിൽത്തെ പങ്കെടുത്ത ആൾക്കാരുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷേ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഞാനന്ന് ആ റിയാലിറ്റി ഷോകളിൽ കൂടി കണ്ടതായി എനിക്ക് കേട്ടതായും എനിക്ക് ഓർമ്മയുണ്ട് എന്റെ പാട്ട് മെച്ചപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെയുള്ള സംഗീത റിയാലിറ്റി ഷോകളൊന്നും എന്നെ അങ്ങനെ സഹായിച്ചിട്ടില്ല ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ക്ലാസസ് അതിനു വേണ്ടിയിട്ടുള്ള ക്ലാസസിന് പോയിട്ടായിരിക്കും അല്ലെങ്കിൽ പാട്ട് സ്വയം പാടി പാടി നടന്നിട്ടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കലോത്സവമോ എന്തെങ്കിലും വരുമ്പോൾ അതിന് പങ്കെടുത്ത് അപ്പോഴത്തെ ട്രെയിനർ എനിക്ക് തന്ന പരിശീലനമാകും അല്ലാതെ ഇങ്ങനെ ഇന്ത്യൻ ഐഡൽ അല്ലെങ്കിൽ സ്റ്റാർ സിംഗർ അങ്ങനെയുള്ള റിയാലിറ്റി ഷോകളും സംഗീത റിയാലിറ്റി ഷോകളൊന്നും എനിക്ക് വലിയ ഉപകാരപ്രദമായി തോന്നിയിട്ടില്ല